ഹലോ ഐ സി സി ബാങ്കിലേക്ക് സ്വാഗതം ഹലോ എന്തായിരുന്നു ആവശ്യം പറഞ്ഞോളൂ അ ലോണിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്തിനു വേണ്ടി ഏതാണ് ലോൺ ഏത് ക്യാറ്റഗറിയാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഓക്കെ ബിസിനസ്സ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ അ അ അത് എങ്ങനെയാണ് നിങ്ങൾ അത് നടത്തുന്നയാളാണോ അതോ ഫസ്റ്റ് ടൈം ആണോ

ഓക്കെ അതിനുള്ള ലൈസൻസും കാര്യങ്ങളും അ ഓക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിരുന്നോ അ അപ്പോൾ നമുക്ക് ആധാറ് ലൈസൻസ് നിങ്ങളുടെ എവിടെയാണോ ലൊക്കേഷന് ആ ഒരു കറക്റ്റ് പേപ്പർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് അമ്പതിനായിരം രൂപ തൊട്ട് രണ്ട് ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് ലോൺ സൗകര്യം വരുക നമുക്ക് ഇന്ററസ്റ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം ആണ് വരുന്നത് അ പന്ത്രണ്ട് ശതമാനം ഇൻ്ററെസ്റ്റ് വരും നമുക്ക് പിന്നെ ടെൻ മന്താണല്ലോ വരുന്നത് ഒരു വർഷം എന്ന് പറയുമ്പോൾ ടെൻ മന്താണ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം വരുക അപ്പോൾ ഇത്ര ടു ലാക്ക് വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ടു ലാക്ക് വരെ വെക്കുമ്പോൾ നിങ്ങള് അതിൻ്റെ പന്ത്രണ്ട് ശതമാനം പലിശയാണ് വരിക വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ ആധാർ വേണം ഫോട്ടോ വേണം ഫാം സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും മുൻസിപ്പാലിറ്റിയുടെ എല്ലാ രേഖകളും വേണം നിങ്ങള് മുൻസിപ്പാലിറ്റി ഏരിയ ആണോ പഞ്ചായത്ത് ഏരിയ ആണോ ഏതാണ് പഞ്ചായത്ത് ഏരിയ ആണ് അപ്പോൾ പഞ്ചായത്തിൽ സാക്ഷ്യപ്പെടുത്തിയ സെർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയായിട്ട് ബാങ്കിലേക്ക് വരിക ഓക്കെ ശരി